ആ ഓക്കെ ഓക്കെ മറ്റേ ടൂറിന്റെ കാര്യം പറയാനല്ലേ ആ നിങ്ങടെ സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ ആയിരുന്നു ആ എത്ര ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത് നാലഞ്ച് ദിവസം അല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി ആണോ ഫ്രണ്ട്സാണോ എങ്ങനെയാണ് പോണത് നാലഞ്ച് പേരല്ലേ നിങ്ങൾ ഇപ്പോഴത്തേക്കാണ് നോക്കണത് വീക്കെൻഡാണോ അതോ ഓഫ് സീസൺ ആണോ എങ്ങനെയാണ് നോക്കണത് വീക്കൻണ്ടല്ലേ വീക്കെൻണ്ടിൽ നമുക്കിപ്പോൾ ഒരു മൂന്ന് പ്രീമിയം ഇതൊണ്ട് നിങ്ങൾക്കെങ്ങനെയാണ് അഫോർഡ് ചെയ്യാൻ പറ്റുക ഈ മൂന്ന് സ്ഥലത്തേക്ക് വേണ്ടി നമ്മുടെ ഈ മൂന്ന് പാക്കേജുണ്ട് ഫസ്റ് നമ്മൾ ഇവിടുന്ന് രാവിലെ മൈസൂർ പോകുന്നു മൈസൂർ അന്ന് സ്റ്റേ അവിടുത്തെയൊരു ഹോട്ടലിൽ അത് കഴിഞ്ഞ് പിറ്റെ ദിവസം അവിടെ മൊത്തം കറങ്ങി അതൊക്കെ നമ്മുടെ ഫുൾ പാക്കേജാണ് പിന്നേ അന്ന് രാത്രി അവിടെ നിന്ന് തിരിച്ച് ഊട്ടി വന്ന് പിറ്റേ ദിവസം ഊട്ടി എക്സ്പ്ലോർ ചെയ്ത് അന്ന് രാത്രി കൊടൈക്കനാൽ സ്റ്റേ ക്യാംഫെയറും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോരുന്നു ഒരു വൈകുന്നേരം ആകുമ്പോൾ റിട്ടേൺ അവിടെ തന്നെ ഒരു മൂന്ന് ദിവസത്തെ പരുപാടി അല്ല അത് നിങ്ങളുടെ സ്പോട്ടിനനുസരിച്ചാണ് ഇപ്പം നിങ്ങൾ അഞ്ചാളാകുമ്പോൾ നമ്മുടെ കൈയിലൊരു ആറായിരം രൂപയുടെ പാക്കേജുണ്ട് അപ്പം നമ്മക്കതിലൊരു അപ്പോൾ വണ്ടി നിങ്ങൾക്ക് പ്രീഫെറ് ചെയ്യാം ഏതാ വേണ്ടതെന്ന് അതിനനുസരിച്ച് അതിന്റെ കോസ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ ഫുഡ്ഡും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇതിൽ വരണത് അതായിരിക്കും അല്ല നമുക്കങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ അഡീഷനൽ ഇൻക്ലൂഡ് ചെയ്യണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം ആ അങ്ങനെയുള്ളു നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് പോയതിന് ശേഷം മുതൽ ആഫ്റ്റർനൂൺ സെഷൻ പിന്നെ രാത്രിയിലത്തെ ഡിന്നർ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിന്നുണ്ടാവും പിന്നെ ലഞ്ച് ഡിന്നർ ഇടയിലുള്ളത് നിങ്ങളുടെ അഫോട് ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതേയുള്ളൂ ലൊക്കേഷനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മൈസൂർ പോകുന്ന നമ്മുക്കൊരു റ്റെൻ റ്റു റ്റൊൽവ് നമുക്ക് ഡിസ് അവേഴ്സ് നമുക്കുണ്ട് അപ്പോൾ നമുക്കത് കവറപ്പ് ചെയ്യണം പിന്നവിടെ എത്തിയിട്ട് അന്ന് രാത്രി നമ്മുക്ക് ഒരു ഹോട്ടലിൽ സ്റ്റേ പിറ്റേദിവസം നമ്മളൊരു നാല് സ്പോട്ടിങ്ങിൽ കാണും അവടൊരു പാലസ് മ്യൂസിയം പിന്നെ വേറെ മ്യൂസിയം ഉണ്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മൈസൂർ പാലസ് അങ്ങനെയൊരു നാലഞ്ച് പ്ലേസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അന്ന് ഒരു വൈകുന്നേരത്തോടുകൂടി നമ്മൾ ഊട്ടിക്ക് കേറും ഊട്ടിയിൽ നമ്മൾ പിറ്റേദിവസം പുലർച്ച് ആകുമ്പത്തേക്കും എത്തും പിന്നന്ന് ഊട്ടിയിലെ ലേക്ക് അങ്ങനൊക്കെ പരുപാടികൾ പിന്നെ സാറിന് അഡീഷനലായിട്ട് വെല്ലോ ഡി ജെ പാർട്ടിയോ അങ്ങനെന്തേലും അഡീഷണലായിട്ട് വേണോ ആ അങ്ങനെ വെച്ചങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഊട്ടീയിൽ എത്തണം അന്ന് അല്ല ഊട്ടീന്ന് കൊടൈക്കനാൽ പോകണം അന്ന് രാത്രീ സെറ്റ് ചെയ്യാം പോണവഴിക്ക് ഒരു സ്ഥലത്ത് ഡി ജെ സെറ്റ് ചെയ്യാം പിന്നെ കൊടൈക്കനാലിൽ എത്തണന്ന് രാത്രീ നമുക്ക് കാംഫയർ അങ്ങനെന്തേലും വേണോ അത് നമ്മൾ പ്രിഫർ ചെയ്യണത് ഓരോ ഹോട്ടൽനനുസരിച്ച് വേണം നമുക്കിതിപ്പോൾ ഇച്ചിരി റേറ്റ് കുറഞ്ഞ ഹോട്ടലെടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് കിട്ടില്ല അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി കോസ്റ്റലി ആയിട്ടുള്ള ഹോട്ടലെടുക്കുവാണെങ്കിൽ നമുക്കതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കിട്ടും കുറയ്ക്കുവോന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈയൊരു പാക്കേജ് ശരിക്കും നമ്മളൊരു ഏഴായിരത്തിന് കൊടുക്കാം അപ്പോൾ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ പരിപാടിയാണിത് നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത് കിടക്കുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ആറായിരത്തിന് വരണ നമുക്കിപ്പോൾ ഒരു അഞ്ചാറു പേര് പോകുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരും എന്തായാലും മൈസൂർ ഒരു ദിവസം സ്റ്റേ അതേമാതിരി ഊട്ടിയിലെ സ്റ്റേ പിന്നെ ഫുഡ് ആയാലും ഫുൾ നമ്മൾ തന്നെ നോക്കുന്നത് കാരണം ഒരു ഡിസ്കൗണ്ട് എങ്ങനെയാ വെച്ചിയുണ്ടെങ്കിൽ പെർ ഹെഡ്ഡ് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് അതിന് താഴേയ്ക്ക് പോവില്ല നമക്ക് ഈ ഒരു വീക്കെൻഡിൽ അഞ്ചു ദിവസം ലീവുണ്ട് നമുക്കിപ്പോൾ എന്നാ ഒരു വെള്ളിയാഴ്ച്ച രാത്രി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്നെറങ്ങിയ വെള്ളിയാഴ്ച രാത്രി നമ്മക്കവിടെ എത്താം പിന്നെ വെള് ശനിയാഴ്ച അവിടെ ശനിയാഴ്ച മൈസൂർ കണ്ട് ഞായറാഴ്ച ഊട്ടി തിങ്കളാഴ്ച കൊടൈക്കനാൽ വഴി തിരിച്ച് റിട്ടേണ് ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പം ഈ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യല്ലേ ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ താങ്ക് യൂ